ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കോളേജുകൾ കൂടുതലായിട്ട് ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യത്തിൽ കേരളം വളരെ അധികം മുന്നിലാണ് അതുപോലെ നമ്മുടെ ജില്ലയിൽ തന്നെയാണെങ്കിലും ഗവർണ്മെന്റ് സെക്ടറിൽ എൻജിനിയറിങ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഉണ്ട് അവിടെ ഒക്കെ കുട്ടികൾക്ക് എം ബി ബി എസും അതുപോലെ എൻജിനിയറിഗും ഒക്കെ പഠിക്കാൻ ആയിട്ട് സാധിക്കും അതുപോലെത്തന്നെ ഡിഗ്രി കോളേജുകൾ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരുപാട് ഉണ്ട് അതുവഴി കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ കിട്ടുന്നുണ്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ അധികം കൂടുതലായിട്ട് ഉണ്ട് അതിനാൽ തന്നെ അധ്യാപകർക്ക് കൂടുതലായിട്ടുള്ള ജോലി സാധ്യതകളും കുട്ടികൾക്ക് കൂടുതലായിട്ട് തുടർ വിദ്യാഭാസ അവസരങ്ങളും ഇവിടെ തന്നെ ലഭ്യമാകുന്നുണ്ട് തുടർ വിദ്യാഭാസത്തിനുവേണ്ടി മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളും എണ്ണം വളരെ അധികം കൂടുതലാണ് അത് കൂടുതലായിട്ടും ജോലി സാധ്യതകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവരും പുറംരാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ ഉള്ളവർക്ക് ആണെങ്കിലും പല പല ഡിഗ്രി കോഴ്സസ് ഉണ്ട് ബി എസ് സി ബി എസ് സി സയൻസ് സ്ട്രീമിൽ ഉള്ളവർക്ക് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ഫിസിക്സ് ബി എസ് സി സുവോളജി ബോട്ടണി അങ്ങനെ എല്ലാവിധ സ്ട്രീമിൽ ഉള്ളവർക്കുള്ള ഡിഗ്രി കോഴ്സസ് അവൈലബിൾ ആണ് ബി എ ബി എ എം ബി എ ബി ബി എ അങ്ങനെ പല പല കോഴ്സസും നമുക്ക് നാട്ടിൽ തന്നെ കൂടുതൽ ആയിട്ട് ഉള്ളതിനാൽ തന്നെ കുട്ടികൾക്ക് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കൂടുതലും വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് ആയി കേരളത്തിനെയും പുറത്തേയ്ക്ക് പോകാറുള്ള നഴ്സിംഗ് പോലെ ഉള്ള കോഴ്സ്കൾക്ക് ആയിട്ട് പക്ഷേ അതും ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്